മലയാള ഭാഷ ഇപ്പോൾ സാഹിത്യലാ സാഹിത്യത്തിലായിക്കോട്ടെ കവിതകളിലായിക്കോട്ടെ കലാവിഷ്ക്കാരങ്ങളിലായിക്കോട്ടെ ഒരുപാട് മേഖലകളിൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഓരോ ഓരോ രീതിയിലാണ് മലയാളഭാഷ ഓരോ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് ഇപ്പം കവിതയിലായിക്കോട്ടെ സാഹിത്യത്തിലായിക്കോട്ടെ ഇപ്പം സാഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ അത്യാവശ്യം സാഹിത്യപരമായ ഭാഷകളുണ്ടാവും അതുപോലെ പിന്നെ വേറെ ഇപ്പം തനി നാടൻ രീതിയിലുമുണ്ടാവും പിന്നെ കവിതയിലൊക്കെ ആണെങ്കില് ഇപ്പോൾ കവികള് വേറൊരു രീതിയിലാണ് ഭാഷയെ ആവിഷ്ക്കരിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് ചില നമുക്ക് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല അത് കവി കവിയുടെ രീതിയിൽ കലാവിഷ്ക്കരമായി ബന്ധപ്പെട്ട് ഇപ്പം ചെറിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം കട് കട്ടിമ കട്ടിയായ വേറൊരു രീതിയിൽ ചിന്തയെ വേറൊരു രീതിയിൽ എത്തിക്കു വേറൊരു സ്ഥലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലുള്ളൊരു കലാ ആവിഷ്ക്കാരമാണ് കവിതകളിലൊക്കെ നൽകുന്നത് അതുപോലെ മേ ലേഖനത്തിലും കഥകളിലൊക്കെ ആണെങ്കില് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് എന്ന് വച്ചാൽ നമ്മള് നാടൻ നമ്മുടെ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിലാണ് അപ്പം ഈ സാഹിത്യ ആൾക്കാര് അല്ലങ്കിൽ കവികള് അവരുടേതായ രീതിയിൽ ഭാഷയെ മാറ്റി മറി മാറ്റി മറിക്കുകയും അവരുടേതായ രീതിയിൽ അതിനെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം മലയാള ഭാഷയിലായിക്കോട്ടെ ഒരുപാട് അർഥങ്ങളുണ്ട് ഇപ്പം ഒരു ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട് പല വാക്കുകളുണ്ട് പല പദങ്ങളുണ്ട് ഇപ്പം ഭാഷാ ഭേദങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ആ രീതിയിലാണ് ഓരോ കലാവിഷ്ക്കാരങ്ങളിൽ ഓരോ രീതിയിൽ ഉപയോഗിച്ച് വരുന്നത്